അ അതെ അതെ അ അതെ ഫേസ് ക്രീം ഐറ്റംസൊക്കെ ഉണ്ട് സർ എല്ലാത്തിനും നല്ല ഓഫറുണ്ട് എങ്ങനെ അതെ ഉണ്ട് ജില്ലെറ്റ് ഉണ്ട് ജില്ലെറ്റ് ഉണ്ട് പലതരം കമ്പനികളുണ്ട് സാർ അതെ ജില്ലെറ്റിന് മുപ്പത് പെർസെൻറ്റേജ് നമുക്ക് ഓഫറ് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം എടുക്കുവാണെങ്കില് അതെ പിന്നെ വേറെ ബാക്കി ഉള്ള കമ്പനീസിൻറ്റൊക്കെ ഓഫറുണ്ട് അതിന് റേറ്റും കൂടുതലാണ് ഇപ്പോൾ ഇതിനാണ് റേറ്റ് ലേശം കുറവ് സാർ പറഞ്ഞ ജില്ലറ്റിൻറ്റേന് അ നല്ല നല്ലൊരു കമ്പനിയാണ് എങ്ങനെ

അ ഓക്കെ അത് ഉണ്ട് അത് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ വേറെ എന്തെങ്കിലും വേണോ

അ ഉണ്ട് ഉണ്ട് അത്തർ ഉണ്ട് അ ഉണ്ട് ഉണ്ട് ഉണ്ട് അത്തറ് പലതരം ടൈപ്പുണ്ട് ബിസ്ക്കറ്റ് പിന്നെ മറ്റേ ഓരോരോ ഫ്ലേവറില്ലേ അ ജാസ്മിൻ ജാസ്മിൻ്റെ അ ജാസ്മിൻ്റെ ഉണ്ട് ജാസ്മിൻ്റെ ഉണ്ട് അത് ചെറിയ ബോട്ടിൽ ആണോ വലിയ ബോട്ടിൽ ആണോ ഉള്ളത് അത് അൻപതിൻ്റെ ഉണ്ട് ഇരുപതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് ഗിഫ്റ് കൊടുക്കാനാണ് ഓക്കെ ഗിഫ്റ് പാക്കറ്റ് ആക്കിയിട്ട് നമ്മളത് സെറ്റ് ആക്കിത്തരും അതുകൊണ്ടൊന്നും സാറ് പേടിക്കണ്ട അതെ ചെയ്ത് തരും ചെയ്ത് തരും ഇല്ല ഇല്ല ഗിഫ്റ് പാക്കറ്റ് ആക്കുന്നതിന് പൈസ ഒന്നുമില്ല സാറ് വന്നാൽ മതി ഇത് സെലക്ട് ചെയ്യാം നമ്മളത് ഗിഫ്റ് പാക്കറ്റ് എന്താണോ വേണ്ടത് അത് ഗിഫ്റ് പാക്കറ്റ് ആക്കിയിട്ട് സാറിന് തരും

അ സ്പ്രേയുണ്ട് സ്പ്രേ ഏതാ വേണ്ടേന്ന് വെച്ചിട്ട് നോക്കിയിട്ട് അ ഓക്കെ എടുക്കാം എടുക്കാം സ്പ്രേ ഏതാ വേണ്ടത് സ്പ്രേ നമ്മുടെ മറ്റേ നമ്മടെ അതായത് സിഗ്നേച്ചര് എന്താണ് മറ്റേ ഫോഗ് ഉണ്ട് ആക്സിൻ്റെ സിഗ്നേച്ചര് എന്ന് പറഞ്ഞൊരു ടൈപ്പുണ്ട് ഫോഗിന് മുന്നൂറ്റി ചില്ലറ രൂപയായിരിക്കും അത് കുറച്ച് ലാർജ് കുപ്പി പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് മറ്റത് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും നമുക്ക് കുറച്ചുകൂടെ നല്ലോണം ഒരു ഇപ്പോൾ ഒരു മാസമൊക്കെ യൂസ് ചെയ്യാൻ ഉണ്ടാവും മറ്റത് ഇപ്പോൾ ഒരു രണ്ടാഴ്ച ഒക്കെ ആകുമ്പോത്തെനും തീർന്ന് പോവും അ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ

ഓക്കെ ഓക്കെ ഓക്കെ സർ ഓക്കെ അതെ ഓക്കെ സർ ഓക്കെ താങ്ക്യു